സുഹൃത്തേ ഞാൻ നിങ്ങളുടെ വണ്ടീന്ന് വിളിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടിലായി പോയല്ലോ ഒന്നാമത്തെ കാര്യം തന്നെ വണ്ടിക്കകം തന്നെ ഒരു വൃത്തി കുറവാണ് നമ്മൾ ഏ സിയൊക്കെ ഇട്ട് അകത്തു ഇരുന്നിട്ട് വണ്ടിയുടെ ഉള്ളിലിരുന്ന് യാത്ര പോകുമ്പോൾ ഈ ഒരു മുഷിഞ്ഞ സ്മെല്ല് വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ ഭയങ്കര മോശം സർവീസായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് റാഷ് ഡ്രൈവിംഗ് പിന്നെ വണ്ടിയുടെ ഇൻ്റീരിയർ ഒന്ന് സ്മെല്ല് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മുഷിഞ്ഞ സ്മെല്ലായിരുന്നു കാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് പിന്നെ സീറ്റ് സീറ്റൊക്കെ ആകെ പൊടി പിടിച്ചു എന്തോ കീറിയൊക്കെ ഇരിക്കുന്ന സീറ്റൊക്കെ ഒരു യാത്രക്കാർ നിങ്ങൾ ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമല്ലേ അപ്പോൾ അത് അതിൻ്റേതായ വൃത്തിക്ക് കൊണ്ടു പോകണ്ടേ അത്തരത്തിൽ നമ്മളൊരു ഒരു യാത്രക്കൊക്കെ പോകാനായിട്ട് പല തരത്തിലുള്ള പല ഇടത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നതല്ലേ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല ഒരു ചിലപ്പം ഒരു അത്യാവശ്യം യാത്രക്കു പോകുമ്പോൾ ടാക്സി ഒക്കെ വിളിക്കും അപ്പോൾ നമ്മളൊരു വൃത്തിയായിട്ടൊക്കെ പോകാനൊക്കെയായിട്ടല്ലെ വിളിക്കുകയുള്ളൂ ഇത് നിങ്ങളുടെ കാറിൽ കയറി യാത്ര ചെയ്ത് വന്നിട്ട് നമുക്ക് ക്ഷീണം ഒന്നു കൂടി ക്ഷീണമായി പോവുകയല്ലേ ബുദ്ധിമുട്ടാകുന്നത് പിന്നെ എന്താ നിങ്ങളുടെ കാറിൽ ഫുള്ള് ഒരു ജർക്കിങ് അതൊക്കെ വണ്ടി കൃത്യമായിട്ട് ശരിയാക്കണ്ടേ നിങ്ങൾ ഒരു യാത്രക്കാരെയും കൊണ്ട് പോകുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാണ് ഇനിയെങ്കിലും ഇന്നിപ്പോൾ ഇങ്ങനെ പറ്റിപ്പോയി ഇനിയെങ്കിലും ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാണ്